നമുക്ക് അങ്ങനെ നൃത്തം ചെയ്യാനൊന്നും അറിയില്ല പിന്നെ കളിച്ച കളിക്കും അവരുടെ കൂടെയൊക്കെ കൂടിയിട്ട് കളിക്കും ഒരു രസമല്ലെ അല്ലാതെ പഠിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല പിന്നെ പരിചയായിട്ടില്ലാത്ത സാ സാഹചര്യത്തിൽ ഒരു നൃത്തം പഠിക്കണ്ട പഠിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ചെയ്യാറില്ല ഞാൻ എപ്പൊഴും ഒരു ബാക്കിലോട്ട് നിൽക്കുന്ന ഒരാളാണ് ഇങ്ങനത്തെ കാര്യത്തില് അപ്പം അതുകൊണ്ട് എനിക്ക് അവതരിപ്പിക്കാനോ അതേപോലെ പഠിക്കാനോ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ നമുക്കാകെ എനിക്കാകെ അറിയണതെന്ന് വെച്ച ഒപ്പനയാണ് വേറെ വേറൊന്നും എനിക്കങ്ങനെ ഒപ്പന കളിക്കാനറിയും അല്ലാതെ വേറെ ഒരു ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഡാൻസ് കളിക്കാറില്ല അങ്ങനെ കളിക്കാറില്ല പുരയിൽ നിന്ന് അങ്ങനെ വിടില്ല പിന്നെ അത്കൊണ്ട് കളിക്കാറുമില്ല കൂടിയിട്ടില്ല പണ്ട് പഠിക്കുന്ന സമയത്ത് കളിച്ചതല്ലാതെ നമ്മള് പിന്നെ പഠിച്ചിട്ടുമില്ല കളിച്ചിട്ടുമില്ല അങ്ങനൊരു സാഹചര്യം വന്നിട്ടുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം